തൊഴിൽ ഇല്ലായിമയെ കുറിച്ചു പറയാനാണെങ്കിൽ ഒത്തിരി കാര്യങ്ങളുണ്ട് നമ്മളുടെ യുവാക്കൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു വൈറ്റ് കോളർ ജോബാണ് വൈറ്റ് കോളർ ജോബെന്ന് മാത്രമല്ല പ്രാധാന്യം എല്ലാ ജോലിക്കും അതിൻ്റേതായ ഒരു മഹനീയത ഉണ്ടെന്ന് എല്ലാവരോടും പറഞ്ഞു കേൾപ്പിക്കേണ്ടതാണ് എല്ലാവർക്കും ആദ്യം സ്കൂള് കാലം തൊട്ട് ജോലികളെ കുറിച്ചു കുട്ടികൾകൊക്കെ നല്ല അറിവ് കൊടുത്ത് അവരെ ഈ രീതിയിൽ ട്രെയിൻ ചെയ്തു കൊണ്ടു വരികയാണെങ്കിൽ ഏത് ജോലിയും ചെയ്യുന്നതിന് എല്ലാവർക്കും താല്പര്യം തോന്നും നമ്മടെ കുഞ്ഞുങ്ങളെ വെളിയിലെ രാജ്യങ്ങളിൽ പോയി എന്ത് ജോലി വേണമെങ്കിലും ചെയ്യും അപ്പം അവർക്ക് അവിടെ അതിൻ്റേതായിയിട്ടുള്ള കാശ് കിട്ടുന്നുണ്ട് പൈസ കിട്ടുന്നുണ്ട് നോട്ട് കിട്ടുന്നുണ്ട് അത് മാത്രമേ ആളുകൾക്ക് താല്പര്യമുള്ളു ഇവിടെ ജോലി ഇന്ന ജോലി ജോലിയെ കുറിച്ച് ആർക്കും യാതൊരു താല്പര്യവുമില്ല തൊഴിലുകളിൽ ഇന്ന ജോലി മാത്രമേ ഞാൻ ബി എസ് സി പഠിച്ചതാണ് ഞാൻ ഒരു കൂലിപ്പണിക്ക് അല്ലെങ്കിലുമൊരു മേസ്തരി പണിക്ക് അല്ലെങ്കിലൊരു പറമ്പിൽ കിളയ്ക്കാൻ പോകുന്നതോ മോശവാണെന്ന് അല്ലെങ്കിൽ ഒരു ബിഎസ്സിക്കാരത്തി ഒരു വീട്ടുപണിക്ക് അല്ലെങ്കിൽ ഒരു നേഴ്സിംഗ് പണിക്ക് പോകുന്നതും മോശമാണെന്നുള്ള ഒരു ധാരണയാണ് നമ്മുടെ മക്കളെ മനസ്സിൽ കൂടി കടന്നു കൂടിയിരിക്കുന്നത് അപ്പം എന്ത് തൊഴിൽ ചെയ്താലും നമ്മൾക്ക് ആരോഗ്യമുണ്ടെങ്കിൽ എന്ത് തൊഴിൽ ചെയ്താലും അത് ഏറ്റവും നല്ല കാര്യമാണെന്നുള്ളത് ആ ചെറുപ്പം മുതലേ ആളുകളെ പറഞ്ഞു മനസ്സിലാക്കി അങ്ങനെ ചെയ്യിച്ചും തുടങ്ങണം സ്കൂൾ തലം തൊട്ട് ചെറിയ ചെറിയ ജോലികൾ ചെയ്യാൻ വീട്ടിൽ ഉള്ളവരും അതുപോലെ സ്കൂളിൽ നിന്നുള്ളവർക്ക് ആണേലും സ്കൂൾ ടൈം കഴിഞ്ഞു കഴിഞ്ഞിട്ട് ആൺകുട്ടികൾക്ക് ആണെ ഷോപ്പിൽ പോകാം അല്ലെങ്കിൽ പെൺകുട്ടികൾകൊക്കെ ആണേലും ഒരു മണിക്കൂർ അല്ലെ രണ്ട് മണിക്കൂർ ഏതെങ്കിലും വീട്ടിൽ കയറിയെങ്കിൽ അവർക്ക് ഒരു സഹായം ചെയ്തു കൊടുത്താൽ അവർക്ക് പൈസ കിട്ടും അങ്ങനെ എന്ത് ചെയ്താലും തൊഴിൽ അതിനു അതിൻ്റേതായ മഹാത്മയവും ഉണ്ടെന്നുള്ള കാര്യം ഇന്നത്തെ വളർന്നു വരുന്ന തലമുറയെ പഠിപ്പിച്ചിട്ട് തൊഴിൽ ചെയ്യാനായിട്ട് പരസ്പരം സഹായിച്ചു അതിനെ നമുക്ക് തൊഴിൽ ചെയ്യുമ്പം നമുക്ക് അതിനുള്ള വേതനം ലഭിക്കുന്നുണ്ട് അല്ലാതെ നമ്മൾ ഫ്രീ ആയിട്ടല്ല ചെയ്യുന്നത് അങ്ങനെ ചെയ്യാനായിട്ട് നമ്മളുടെ കുഞ്ഞുങ്ങളെ വളർന്നു വരുന്ന തലമുറയെ പഠിപ്പിക്കാൻ പഠിപ്പിച്ചു നമ്മുടെ സർക്കാർ അതിന് അതേ രീതിയിൽ ഉതകുന്ന നികുതിയിലുള്ള ഒരു വിദ്യാഭ്യാസം ആവിഷ്കരിക്കുന്നത് വളരെ നന്നായിരിക്കും എന്നാണ് എൻ്റെ അഭിപ്രായം